ഏതൊക്കെ തരത്തിൽ ചെടിയെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ആ പൂക്കൾ കായ്ക്കുന്ന ചെടികളോടാന്ന് കൂടുതൽ ഇഷ്ടം പിന്നെ പച്ചക്കറി വളർത്താനും ഇഷ്ടാന്ന് പൂക്കൾ കായ്ക്കുന്ന ചെടീന്ന് വെച്ചാൽ റോസാച്ചെടി ജമന്തി കാശിത്തുമ്പ പോപ്പി ഇങ്ങനത്തെ ചെടികൾ കൂടുതലിഷ്ടം സ്ഥിരമായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് പിന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ തക്കാളി വെണ്ട വഴുതന പൊട്ടിക്ക ഇതെല്ലം നട്ട് വളർത്താൻ ഇഷ്ടം നമ്മൾ കടകളിൽ കിട്ടുന്ന കായകളത്ര വലിപ്പം ഉണ്ടാവില്ല നമ്മൾ നട്ട് വളർത്തിയാൽ എന്നാലും നമ്മളുടെ ആവശ്യത്തിന് അതെടുക്കാലോ അങ്ങന വേറെ കടകളിലോട്ടന്നെ ഓരോ വിഷാംശങ്ങളുള്ള പച്ചക്കറികളല്ലല്ലേ കിട്ടുന്നത് നമ്മുടെ വീട്ടിലാകുമ്പം ചെറിയ കായകളാണെങ്കിലും അതിന് വിഷാംശം ഒന്നൂല്ലാതെയാകുമ്പം നമുക്ക് ഉപയോഗിക്കുന്നതിന് പേടിക്കണ്ടാല്ലോ ആ പിന്നെ പൂക്കളെന്ന് പറഞ്ഞാൽ പൂക്കളിങ്ങനെ സ്ഥിരമായിട്ട് കായ്ക്കുന്ന പൂക്കളാകുമ്പോൾ നമുക്ക് കാണാനും ഒരു നല്ല ഭംഗിയാന്ന് വീടുകളിലൊരു ഐശ്വര്യം ഉണ്ടാകും അതിന് അപ്പം അതുകൊണ്ട് പൂക്കളുള്ള ചെടികൾ വളർത്താനും ഇഷ്ടം പിന്നെ പച്ചക്കറികൾ നമ്മുടെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കഴിച്ചാൽ ബാക്കി ഉണ്ടെങ്കിൽ അത് കടകളിൽ കൊണ്ടു പോയിട്ട് കൊടുക്കുകയും ചെയ്യാം വിഷമൊന്നുല്ലാത്ത പച്ചക്കറിയാകുമ്പം എല്ലാവർക്കും അത് നല്ലതല്ലേ അതുകൊണ്ട് കടകളിൽ കൊടുക്കുകയും ചെയ്യലുണ്ട്